പഞ്ചായത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം പഞ്ചായത്ത് മുഖേന അല്ലാതെ ഒരു കാര്യങ്ങളും നടപ്പാകുന്നില്ല അപ്പം നമ്മൾ പഞ്ചായത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ജനന മരണ രജിസ്ട്രേഷൻ പഞ്ചായത്ത് വഴിയാണ് നടത്തുന്നത് അതു പോലെ നമ്മുടെ വിവാഹ രജിസ്ട്രേഷൻ എല്ലാം പഞ്ചായത്ത് വഴിയാക്കി നമ്മൾ വീടിൻ്റെ കരമടക്കണമെങ്കിൽ അത് പഞ്ചായത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പഞ്ചായത്തോട്ട് ബന്ധപ്പെടാത്ത നമുക്ക് ഒരു കാര്യങ്ങളും തന്നെ പറയാനില്ല പിന്നെ നമുക്കൊരു വീട് ഒന്നും പിന്നെ ഇങ്ങനെ പാട്ട കരാറെഴുതണമെങ്കിലോ അതിന് എല്ലാം നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്ത് എന്തൊരു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് പഞ്ചായത്ത് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് എവിടെ നമ്മുടെ പ്രദേശത്തൊരു കുടിവെള്ള പദ്ധതിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് പഞ്ചായത്ത് വഴിയാണ് അതിൻ്റെ സംഭവങ്ങളെല്ലാം അവരിറക്കി കൊടുക്കുന്നതും അതിൻ്റെ പൈപ്പ് കണക്ഷൻസ് എല്ലാം പഞ്ചായത്ത് ഇടപെട്ടിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യത്തിനും അങ്ങനെയാണ് പിന്നെ നമ്മുടെ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്ക് തന്നെയല്ല എന്തൊരു പദ്ധതി നമ്മുടെ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമുക്ക് പഞ്ചായത്ത് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ കുടിവെള്ള പദ്ധതി അതുപോലെ പിന്നെ റോഡ് അതൊക്കെ പഞ്ചായത്തിൻ്റെയാണ് റോഡ് പൊട്ടി പൊളിഞ്ഞ് കടന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നന്നാക്കുന്നതിനായിട്ടും നമ്മൾ പഞ്ചായത്തിൻ്റെ അനുമതി വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തുമായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്

ഓരോ ജനന മരണ രജിസ്ട്രേഷനെന്നു പറഞ്ഞാൽ ഒരാൾ മരിച്ച് ജനിച്ചാലും പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്ടർ ചെയ്യണം മരിച്ചാലും പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്താൽ ആ കാര്യമുള്ളൂ അതു പോലെ നമ്മൾ ബിൽഡിങ് ടാക്സ് അതും പഞ്ചായത്ത് വഴിയല്ലേ അടക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് പഞ്ചായത്ത് വഴി ചെയ്യാൻ അതോ അത്ര അങ്ങനെയൊക്കെയാണ് പഞ്ചായത്തിൻ്റെ ആ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് അതാണ് പിന്നെ പഞ്ചായത്ത് വേണം ഒരു ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ പല പല ആവശ്യങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതി അല്ല നമുക്കിപ്പം ഒത്തിരിയതേക്കുറിച്ച് വ്യാപകമായിട്ട് പറയാനില്ലെങ്കിൽ പോലും നമ്മളിപ്പം പഞ്ചായത്തിൽ ചെന്നാലും അവിടെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് നമുക്ക് പഞ്ചായത്തിൽ കാണാൻ പറ്റുന്നത് ഓരോ ജനങ്ങളും ഓരോരോ കാര്യത്തിനായിട്ട് കയറി ഇറങ്ങുന്നു അങ്ങനെ പല പല ഒരിപ്പം നമ്മുടെ വീട് നിർമ്മിക്കുന്ന നമ്മുടെ പിന്നെ മറ്റേ പി എം എ വൈ ആണെങ്കിലും അല്ലാത്ത ലൈഫ് മിഷൻ പദ്ധതിയിലാണെങ്കിലും നമുക്കൊരു വീട് കിട്ടണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എത്ര എത്ര രേഖകൾ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് അതെല്ലാം ഒന്ന് സാങ്ക്ഷനാക്കി കിട്ടുന്നത് അതിനെല്ലാം നമ്മൾ പഞ്ചായത്തിൽ പോകണം നമുക്കും തിരക്ക് ആണ് അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരാൾക്ക് മാത്രമായിരിക്കും വീട് കാര്യങ്ങൾ ഒക്കെ ഉള്ളു പക്ഷെ നമ്മൾ പഞ്ചായത്ത് ചെല്ലുമ്പം അത് എത്ര പേര് അങ്ങതിനായിട്ട് ആവശ്യങ്ങളുമായിട്ട് വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നറിയാമോ അങ്ങനെ നമ്മൾ ചെയ്യുക അങ്ങനെയാണ് എല്ലാ നമ്മുടേതായ സാമൂഹികമായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് വേണം എവിടെയെങ്കിലും ഒരു കുടിവെള്ളം പദ്ധതിക്കാണെങ്കിൽ പോലും അതങ്ങനെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ അനുമതിയോട് കൂടി വേണം ചെയ്യാനായിട്ട് പഞ്ചായത്തിൽ പ്രസിഡന്റും എല്ലാവരും കൂടി കൂടി പങ്കെടുത്തോരോ കമ്മിറ്റി കാര്യങ്ങൾ തീരുമാനങ്ങളെല്ലാം അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നടപ്പാകുന്നത് അങ്ങനെ ഉണ്ട് പഞ്ചായത്തുകാർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളെല്ലാം അവർ പഞ്ചായത്തുകാർ നമുക്ക് ചെയ്തു തരും ഇപ്പം ഒരു ദിവസം പോയാൽ കാര്യങ്ങളൊന്നും നടന്നില്ലയെങ്കിൽ പോലും രണ്ടാമത്തെ ദിവസം നമ്മളോട് ചെല്ലാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അപ്പം അവർ നമ്മളെ ഒക്കെ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തുതന്ന് അവർ നമ്മളെ നല്ല രീതിയിൽ പറഞ്ഞു വിടാറുണ്ട്